ഈ വാഷിംഗ് മെഷീന്റെ നെഗറ്റീവ് എന്താണെന്നു വച്ച് കഴിഞ്ഞാൽ ചെളി അങ്ങനെ പോകില്ല നമ്മളിപ്പം എവിടെയെങ്കിലും ഇപ്പം ഫുട്ബോൾ കളിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോയിക്കഴിഞ്ഞാൽ ഫുള്ള് ചെളിയാകില്ലേ അത് അതിനകത്ത് കൊണ്ടുപോയി ഇട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ വേറെ നമ്മൾ തുണി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തും പിടിക്കും അതായത് അപ്പം ഭയങ്കര പ്രശ്നമാകും പിന്നെ അതു നമ്മൾ രണ്ടാമതും വീണ്ടും അലക്കണം അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് അപ്പം തുണി എങ്ങനെയാണെന്ന് വച്ചാൽ ഫുള്ള് ചളിയായിരിക്കുമല്ലോ ചളി നമ്മൾ എന്തു ചെയ്യും അതിനകത്ത് കൊണ്ടുപോയി ഇട്ടുകഴിയുമ്പോഴത്തേക്കും ഫുള്ള് എന്താ പറയുക മറ്റേ വെള്ളം മൊത്തം ഫുള്ള് ചളിയായിരിക്കും പിന്നെ വെള്ളത്തുണിയാണെങ്കിൽ വലിയ രീതിയിലങ്ങ് ചളിയും പോകില്ല ഒരു മങ്ങിയ കളറുണ്ടാകും അപ്പോൾ അത് ഒരു ഡിസഡ്വാന്റേജായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു നെഗറ്റീവ് റിവ്യൂ എനിക്കതിനകത്ത് കൊടുക്കാനുണ്ട് പിന്നെ ഡ്രയിൻ ചെയ്യുകയെന്ന് വച്ചുകഴിഞ്ഞാൽ അതിനകത്ത് ഫുള്ള് വെള്ളവും പോകില്ല ഒരു ചെറിയൊരു തണുപ്പ് നിൽക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രയിൻ ചെയ്തെടുക്കുക എന്നു വച്ചാൽ കുറച്ച് ചൂട് അതിനകത്ത് ചേർത്തിട്ട് അങ്ങനെ ഡ്രയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല കാര്യമായിരുന്നു അപ്പം നമുക്ക് വെയിലത്തിടാണ്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും മഴക്കാലത്തൊക്കെ അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാരണം നമ്മളില്ലെങ്കിൽ മഴയത്ത് നമ്മൾ പിന്നെ ഈ ചൂടുള്ള സ്ഥലത്തു കൊണ്ടുപോയിടണം അടുപ്പ് കത്തിക്കുന്നതിന്റെ അവിടെ കൊണ്ടിടണം അതൊക്കെ ഉണ്ട് അതൊക്കെ ആയതുകൊണ്ട് നമുക്ക് വാഷിംഗ് മെഷിനിൽ തന്നെ ഉണക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ഇതൊക്കെയാണ് എന്റെ നെഗറ്റീവ് റിവ്യു എന്നു പറഞ്ഞാൽ ഇതൊക്കെയാണ്